കളികള് ആളുകളെ ഒന്നിച്ചു ചേര്ക്കുന്നതിനും പരസ്പരമുള്ള ബന്ധം നിലനിര്ത്തുന്നതിനും ഒക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് കാരണം എല്ലാ കളികളും പ്രത്യേകിച്ച് പരമ്പരാഗതമായി ഉള്ള കളികള് ഒക്കെ ഒന്നോ രണ്ടോ പേര് ചേര്ന്ന് നടത്തുന്നതല്ല ഒരു വലിയ ഗ്രൂപ്പിനെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എത്ര പേരുണ്ടെങ്കിലും അവരെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് നേരത്തെ മുതൽ കണ്ടുവരുന്നത് അത് അവർക്കിടയിലുള്ള ആ ഐക്യത്തെ വര്ദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പരസ്പരമുള്ള ബന്ധം വളരെ സുഗമമായി നിലനിൽക്കുന്നതിന് ഈ കൂട്ടു ചേർന്നുള്ള കളികൾ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കളികൾക്കു മാത്രമായിട്ടല്ല അവരൊന്നു ചേരുന്നത് അവര് കൂട്ടുകൂടി എവിടെയെങ്കിലും ചേർന്ന് തങ്ങളുടെ വ്യക്തിപരമായ കഴിവുകൾ ചിലപ്പോള് പാടാനുള്ളത് ആയിരിക്കാം നൃത്തം ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനുള്ള കഴിവായിരിക്കാം ഇതൊക്കെ ആ പരസ്പരം ബോധ്യപ്പെടുത്തുന്നതിന് ഉള്ള ഒരു ശ്രമങ്ങളും നേരത്തെ മുതല് കണ്ടുവരുന്നതാണ് അപ്പോള് പരസ്പരം ഒന്ന് ചേരുന്നതിനും തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ഇപ്പറഞ്ഞപോലെ ആ കളികളുടെ സാഹചര്യം അവർക്ക് പ്രയോജനപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് കായികമായ അല്ലെങ്കില് കായികക്ഷമത പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം എന്നതിനെക്കാളേറെ ഈ കൂട്ടുകൂടുന്ന സമയം തങ്ങളുടെ വ്യക്തിപരമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോള് അങ്ങനെ വ്യക്തിപരമായും ഒരു സമൂഹം എന്ന നിലയിലും

ഇന്ന് നിര്ഭാഗ്യകരമെന്ന് പറയട്ടെ കൂട്ടുചേരുന്നതിനുള്ള അവസരങ്ങൾ തന്നെ പരിമിതമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒത്തിരിയേറെ സഹായകമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല പിന്നെ തങ്ങളുടെ കഴിവുകള് വികസിപ്പിക്കുന്നതിന് അതിന്നു പണം മുടക്കി പരിശീലനം നേടി അങ്ങനെ അ മികവിലേക്ക് പോകുന്നതിനുള്ള രീതികളാണു കാണുന്നത് തങ്ങള്ക്ക് സ്വതസിദ്ധമായ കഴിവുകളെ ഉള് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായ വളര്ച്ച നേടുന്നതിനുള്ള സാഹചര്യം ഇന്ന് എന്ത് കൊണ്ടോ ഇല്ലാതാവുന്നു